ഞാൻ പൊതുവെ എന്റെയൊരു കാര്യം പറയാണെങ്കില് ഞാന് എന്താണു പറയുക ഫുട്ബോളാണ് പിന്തുടരുന്നത് ഫുട്ബോളിൽ നമുക്ക് ക്ലബ്ബുകളായാലും ഫുട്ബോളൊരു വൺ ഇയറിൻ്റെ ലീഗ് ഒരു വർഷത്തേക്കുള്ള ലീഗുകളൊക്കെയായാണ് വരുന്നത് അപ്പോള് അതൊരു എല്ലാ ആഴ്ചയിലും കളിയൊക്കെയുണ്ടാവും അപ്പോള് ഫുട്ബോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗുകളായാലും അങ്ങനെ ഒരു പാട് കോമ്പറ്റീഷൻ നടക്കുന്നത് ഫുട്ബോളിലാണ് അതുകൊണ്ടുതന്നെ ഫുട്ബോളാണ് പൊതുവെ ഇഷ്ടം പിന്നെ എല്ലാ കാണും ഏതും എല്ലാത്തിനോടും ഇഷ്ടമുള്ളൊരു ഇതീലന്നെയാണ് പക്ഷെ കൂടുതൽ ഇഷ്ടം ഫുട്ബോളിനോടാണ് വരുന്നത് ക്രിക്കറ്റ് അങ്ങനെ പൊതുവെ കൂടുതൽ ഫുട്ബോളെന്നെയാണ് പിന്നെ എന്താണു പറയുക ഫുട്ബോളില് ഒരു വർഷത്തേക്കുള്ള കളികളൊക്കെയാണ് നടക്കാറ് ഒരു വർഷത്തിന്റെയൊരു ചാമ്പ്യൻഷിപ്പാണ് നടക്കാറുള്ളത് പിന്നെ വേൾഡ് കപ്പ് ഒക്കെ വന്നാല് അത്രയും ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഫുട്ബോളിന്റെ ഒരു എടുത്തുപറയുകയാണെങ്കിൽ പിന്നെ അതേ പോലെ ഇത് എങ്ങനെ അപ്ഡേറ്റ് അപ്പ് റ്റു ഡേറ്റാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നമ്മളെ ഒരു ക്ലബിനെ നമ്മള്ക്കിഷ്ടപ്പെട്ടൊരു ക്ലബ്ബുണ്ടാകുമല്ലോ അതിന്റെ ഒരു സ്പെഷ്യൽ കേരള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതേ പോലെ പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട് ട്വിറ്റർ അതില് ഫോളോ ചെയ്യും അതേ പോലെ നമ്മള്ക്ക് ഇഷ്ടപ്പെട്ട ക്ലബ്ബുകളെയും നമ്മള്ക്ക് ഇഷ്ടപ്പെട്ട ചാമ്പ്യൻഷിപ്പുകളൊക്കെ അതിൽ ഫോളോ ചെയ്യാം അപ്പോള് കൂടുതൽ പിന്നെ പുറത്ത് ഒക്കെ ഉള്ള നമ്മളെ ഇന്ത്യയില് പൊതുവെ കുറവാണെന്ന് തോന്നുന്നു നമ്മളെ യൂറോപ്പില് യൂറോപ്യൻസൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ വാർത്താ ഏജന്സി ന്യൂസ് ചാനലുകൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയകളിൽ അക്കൗണ്ടുകളുണ്ട് അപ്പോള് അവരെയൊക്കെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇപ്പോള് നടക്കുന്ന ട്രാൻസ്ഫര് വരെ ഇവിടെ സ്പോട്ടിൽ വിതിന് സെക്കന്റ്സ് നമുക്കിവിടെ അറിയാൻ കഴിയും അതേപോലെ പത്രം വായിക്കും പത്രത്തില് നമ്മള് പൊതുവെ പിന്നോട്ടാണ് കാരണം എന്താച്ചാ ഇന്നലെ നടന്ന സംഭവങ്ങളാണ് ഇന്നുവരെ നമുക്ക് ഫോണിൻ്റെ അത്ര ഇതില്ല എങ്കിലും നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയ്ലായി വായിക്കണം എന്നുണ്ടെങ്കിൽ പത്രത്തിൽ നോക്കും അതേ പോലെ ഇൻസ്റ്റഗ്രാം ചാനല് ഗൂഗിൾ വഴി ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ വഴിയാണ് നമ്മൾ അറിയുന്നത് ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്താല് ഇന്ന ടീമൊന്ന് അടിച്ചുകൊടുത്താൽ ഇപ്പോള് കഴിഞ്ഞ കളിയേത് ഏത് സ്ഥാനത്താണ് നില്ക്കുന്നത് പൊസിഷനും കാര്യങ്ങളുമെല്ലം അതിൽ ഗൂഗിളിൽ വരും അങ്ങനെ ഒക്കെയാണ് നമ്മൾ കാര്യങ്ങളറിയുന്നത്